മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എനിക്ക് തോന്നുന്നു ഞാന് വായിച്ചതായിട്ട് ഓര്ക്കുന്നു വളരെ വര്ഷങ്ങള്ക്ക് മുമ്പ് പക്ഷേ ആദ്യമൊക്കെ വായിച്ചപ്പോൾ ഒരു താല്പര്യം തോന്നിയില്ല അത് പക്ഷേ ഓരോ പേജുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിനോട് കൂടുതല് ഇഷ്ടം തോന്നുകയും അത് വായിക്കാനുള്ള ഒരു ജിജ്ഞാസ തോന്നുകയും ചെയ്യുന്നു കാരണം നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാന് അനുഫവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഹിംസ ഒന്നിനെയും ഹിംസിക്കരുത് എന്ന ഒരു ഇതാണ് അങ്ങേ ആ പുല് മഹാത്മാഗാന്ധിയുടെ ഒരു ഇതായിട്ടുള്ള ഒരു വാക്യം എന്ന് പറഞ്ഞാൽ അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ എന്തുവാ ഒന്നിനേയും ഹിംസിക്കരുത് നമ്മൾ മറ്റൊന്നിനേയും ഉപദ്രവിക്കരുത് ഒന്നിനേയും കൊല്ലരുത് കൊല്ലാനുള്ള അവകാശം നമുക്ക് ഇല്ലല്ലോ അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ അതിൻറെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത് പിന്നീട് ഇങ്ങോട്ട് ആദ്യമൊന്നും തോന്നിയില്ല പിന്നെ ഇങ്ങോട്ട് വായിക്കാൻ താൽപര്യം കാണിച്ച വസ്തുതകളാണ് അതൊക്കെ അതൊക്കെ നമ്മുടെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട് അവിടെ നിന്നൊക്കെ ബുക്ക് എടുത്ത് നേരെത്തെ ഒക്കെ വായിക്കുമായിരിന്നു ഇപ്പം അങ്ങനെ വായനാശീലം കുറവാണ് എന്നാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം അനുഭവിച്ച കഷ്ടതകൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിത കാലങ്ങൾ ജീവിത ചര്യകൾ പിന്നെ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഇതൊക്കെ എന്നെ സ്വാധീനിച്ച ഘടകങ്ങളാണ് അതുകൊണ്ടാണ് എനിക്ക് അതിനോട് അതില് നിന്നും പ്രചോദിത ആയിട്ടെന്ന് പറയാം നമുക്ക് അതിൻറെ അകത്ത് നിന്ന് ചില ചില കാര്യങ്ങളൊക്കെ ഉള്ക്കൊള്ളാനും അതേ ജീവിതത്തിൽ അതുപോലെ പ്രവര്ത്തിക്കാനുമൊക്കെ ഏറെക്കുറേ സഹായിച്ചിട്ടുണ്ട് ഏറെക്കുറേ അതുപോലെ ചെയ്യുന്നും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം